ആ മേടം ഞാൻ അവിടെ വന്നിരുന്നു സാധനത്തിന് വന്നിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ളൊരു ഫാമീന്നാണ് ഞാൻ വരണത് അപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റൊരു നാല് അഞ്ച് പ്രോഡക്റ്റ് നമ്മുടെ ഫ്രഷായിട്ട് ചെയ്യുന്ന ഫാമീന്നുള്ള പ്രോഡക്ടുകളുടെ ലിസ്റ്റും എല്ലാം ഞാൻ മേടത്തിനവിടെ കൊടുത്തിരുന്നു അപ്പോൾ ഞാനവിടെ വന്നപ്പോൾ മേടം ഇല്ലായിരുന്നു അപ്പോൾ അതൊന്ന് റഫർ ചെയ്ത് അതൊന്ന് നോക്കിയായിരുന്നോ വന്ന് പറഞ്ഞത് അതൊന്നും പറഞ്ഞത് നോക്കിയായിരുന്നല്ലോ അത് ആ ആ മേ മേടം ഡീറ്റെയിൽ ഒന്നുമില്ല നമുക്കത് മേടത്തിന് ഇത് ടോയ്സ് എ ഡേ ആണെങ്കിലും ആ അല്ല ഡെയിലി ആണെങ്കിലും ഡെയിലി ഇപ്പോൾ ഇതില്ല രണ്ടോ ഓരോ ദിവസം വിട്ട് അതായത് ടോയ്സ് എ ഡേ ആണ് സപ്ലൈ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു രണ്ടും മൂന്നും പേരുംകൂടെ അതെ ലൈനിൽ വരുന്ന ഒരു രീതിക്കാണ് അത് കയറ്റി വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ പെയ്മെൻറ്റ് വന്നിട്ട് വാരം വാരം അത് ത തരുമെങ്കിൽ നന്നായിരുന്നു ആ പിന്നെ വാരം വാരം നമ്മൾ ഈ കണക്ക് ക്ലിയർ ചെയ്യണതിന് തൊട്ടുമുമ്പേ വേറാരെ ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റുടെ വന്ന് പറ നേരത്തെ നേരത്തെ വിളിച്ചാൽ മതി ഞാൻ അന്നേരം പിന്നീട് ഞാൻ വണ്ടി തന്നെ അത് തിരിച്ച് അതിൻ്റെ ടിക്കെയും അങ്ങനെ ഉള്ളതെല്ലാം എടുത്തോളാം പെയ്മെൻറ്റ് ആ വാരത്തിലൊന്ന് ക്ലിയർ ചെയ്തേച്ചാൽ സാറ്റർഡേയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ തന്നാലും മതി പെയ്മെൻറ്റ് അപ്പോൾ അതൊന്ന് ആ തീർച്ചയായിട്ടും അത് അയക്കാം ആ അതയക്കാം അതിനെ അതിന് ഒരു ബുദ്ധിമുട്ടൂല്ല അത് ഞാൻ ഓൺലൈ പെയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ അയക്കാം ആ അപ്പോൾ ആ പ്രോ പ്രോഡക്റ്റ് ഏ ഒരു വൈകുന്നേരത്തെ ഏഴ് മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് കൊടുത്തേക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്യണം മതി ഓക്കെ തീർച്ചയായിട്ടും അത് പെയ്മെൻറ്റിന് ഒരു ഒരു ഒരു ഇഷ്യൂവും വരാതെ വരാതെ നോക്കണം ശനിയാഴ്ച മതി പ പെയ്മെൻറ്റിൻ്റെ ഇത് വേ വേ എല്ലാ വാരം വാരം ഒന്ന് ക്ലിയർ ചെയ്ത് തരണം ഞാനും ഈ ഈ കണക്കാ

ശരി ശരി ശരി കാരണം ഞങ്ങളും ഞങ്ങളിവിടെ അവരുടെ ലേബേഴ്സിനെക്കെ നമ്മുടെ കൂടെ നിക്കണവർക്കെക്കയും ശനിയാഴ്ചയാണ് ഞങ്ങൾ നമ്മുടെ സെറ്റിൽമെൻറ്റ് വച്ചിരിക്കുന്നത് അപ്പം മാക്സിമം ഒരു നമ്മുടെ ബാങ്ക് ടൈമിന് തന്നെ ഈ പെ പെയ്മെൻറ്റ് തന്നാൽ അത് നമുക്കൊരു ഏഴ് മണിക്ക് മുമ്പേ അവരുടെ അവരെ സെറ്റിൽമെൻറ്റ് ചെയ്ത് അവർക്ക് വിടാൻ പറ്റു അവരെ ആ ശരി ഓക്കെ ആയിക്കോട്ടെ